ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നിന്ന് ഒരു കെറ്റിൽ വാങ്ങിച്ചിരുന്നു ഫിലിപ്പ്സ് എന്ന കമ്പനിയുടെ കെറ്റിൽ ആയിരുന്നു അത് അത് എനിക്ക് വളരെ ഉപകാരപ്രഥമായി തോന്നി കാരണം ഞാൻ ഒരു ഹോസ്റ്റൽ സ്റ്റുഡൻ്റ് ആണ് അവിടെ എനിക്ക് ഇൻ്റക്ഷൻ കുക്കാറോ സ്റ്റവോ ഗ്യാസോ കാര്യങ്ങളൊന്നുമില്ല ആ സമയത്ത് എന്നെ വളരെ അധികം ഭക്ഷണം ഉണ്ടാക്കാനും വെള്ളം തിളപ്പിക്കാനും എനിക്ക് ഉപയോഗപ്രഥമായി വന്ന സാധനമാണ് ഈ കെറ്റിൽ എന്നു പറയുന്നത്